ആ ഇവിടെ ഉണ്ടല്ലോ ആ

അടുത്ത ഭക്ഷണം ഇവിടുന്ന് സദ്യയാണ് കഴിച്ചിട്ടുള്ളത് അതിന് ചോറും കറിയും സാമ്പാർ അവിയൽ ഉപ്പേരി

പിന്നെ കൂട്ടുകറി ഓല വെച്ചത് പിന്നെ പായസം പപ്പടം ഒക്കെ ഉണ്ട് അതെ പായസം പപ്പടം കൂട്ടി കഴിക്കുന്നത് പ്രത്യേക രസമാണ് അതൊക്കെ പിന്നെ അതായത് ഇപ്പം ഞങ്ങൾ വിഷുക്കണി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുട്ടിട്ടുണ്ട് അതിലേക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കിയതുണ്ട് ആ പടു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു ആ ആ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് പിന്നെ പൂള കറും പപ്പായ ഉള്ളിത്തണ്ട് ചേമ്പിൻ തണ്ട് പിന്നെ ചേന അങ്ങനെ എല്ലാതും കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഒരു തൊടു കറിയ പടു കറിയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അത് ഉണ്ട്

ആ പിന്നെ കുറച്ച് ചക്ക വെച്ചതും ഉണ്ട് ചക്ക കൂട്ടാൻ വെച്ചതുണ്ട് ഉം ഉം അതൊക്കെ ഉണ്ട് ഉം നാളേക്ക് നമുക്ക് കഴിക്കാമല്ലോ